ഉമ്മയുടെ കൈപ്പുണ്യം കൊണ്ട ഇഷ്ട്ടമായി വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു പിന്നീട് ആ റെസിപ്പി എന്താണെന്ന് ഉമ്മേനോട് ഞാൻ ചോദിച്ചു അതിന് അതിൻ്റെ ഇൻഗ്രീഡിയൻസുകൾ വറുത്ത റവ ഇരുനൂറ്റിയമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് നൂറ്റിയമ്പത് ഗ്രാം കോഴി മുട്ട മൂന്ന് എണ്ണം സോഡ പൊടി ഒരു നുള്ള് ഉപ്പ് ആവശ്യത്തിന് പാൽ അര ഗ്ലാസ് നെയ്യ് അത് ഉണ്ടാക്കേണ്ട വിധം ഒ ഒന്നുമുതൽ ആറ് വരെയുള്ള ചേരുവകൾ കൂട്ടി പത്ത് മണിക്കൂർ കുതിർത്തി വയ്ക്കുക പത്ത് മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി രണ്ട് തുള്ളി വീതം നെയ്യ് ഓരോ സ്പൂണിൽ അതിൽ ഒഴിക്കുക ചെറിയ ചൂടായതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പൊടി ചട്ടിയിലൊഴിച്ച് അത് തിരിച്ചും മറിച്ചും ഇട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് വേണമെങ്കിൽ അതിന്റെ ഡിസൈൻ അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിൽ വയ്ക്കുക